ഇൻറ്റർനെറ്റിന്റെ കളികളെ കുറിച്ച് അത്ര ധാരണ എനിക്ക് പോരാ ഞാ ഞാന് ഇൻറ്റർനെറ്റിലങ്ങനൊന്നും കളിച്ചിട്ടില്ല എങ്കിലും പിള്ളേരെക്കെ കളിക്കുന്ന കണ്ടേക്കുന്നത് ഓരോരുത്തര് ഇപ്പോള് അങ്ങോട്ടുമിങ്ങോട്ടും പിടികൂടുക എന്ന് പറയുന്നു അവര് അവരവരുടെ ഫോണിലിരുന്ന് ചാടെടാ മടിക്കടാ വയ്ക്കെടാ എന്നൊക്കെ പറയുന്നു ശരിക്കും എന്നാന്നെനിക്ക് മനസ്സിലായിട്ടില്ലത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കളി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഗ്രൗണ്ടില് പോയി കളിക്കണം അല്ലെങ്കില് ചെറിയ കളികളാണെങ്കില് പോലും എന്നാണേലും കായികമായിട്ടാണ് കളികള് മുഴുവൻ ഇപ്പോള് കളികളെന്നു പറയുമ്പോള് ഫോണുപയോഗിക്കുക വീട്ടിലിരിക്കുക അല്ലെങ്കില് റൂമിലിരിക്കുക രാത്രിക്കൊക്കെ ആണേലിരുന്ന് പാതിരായ്ക്കൊക്കെ ഇരുന്നു കളിക്കുക കേൾക്കുമ്പോള് നല്ല രസമാണ് റൂമിനകത്ത് തന്നെ ഇരുന്ന് ഇത്തരം കാര്യങ്ങള് വിനോദങ്ങളിലെല്ലാം ഏർപ്പെടാം പക്ഷേ അതിനതിൻറ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെയുണ്ട് നമ്മള് ഒരു കളികൾക്ക് പോകുമ്പോഴത്തേക്ക് നമ്മള് ഒരു പരിധിവരെ നമ്മുടെ വ്യായാമം നടക്കുന്നുണ്ട് നമ്മുടെ ശരീരമൊക്കെ എപ്പഴുമൊന്ന് ഇളകുന്നുണ്ട് ആവശ്യത്തിന് പുറത്തുപോകുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു രീതി വച്ചുനോക്കിയാല് ഫോണുമായിട്ട് വീട്ടിനകത്തിരിക്കുന്നു അതുവഴി നെറ്റ് വഴി കണക്ടെയ്യുന്നു വീണ്ടും ഉള്ള പുറത്തേക്ക് പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യായാമത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല നമ്മള് പൊണ്ണത്തടി പോലുള്ള കാര്യങ്ങളിലേക്കെക്കെ പിള്ളേര് പിള്ളേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യാതെ വരുമ്പോളത് അമിത ഭാരത്തിലേക്കൊക്കെ പോകുന്നു അതിനെ തുടർന്ന് ഒത്തിരി ഒത്തിരി അസുഖങ്ങള് ഈ ദൈനംദിന നമ്മൾ പണ്ടൊക്കെ കേട്ടു കേൾവി ഇല്ലാത്ത ഒത്തിരി അസുഖങ്ങളിപ്പോള് പിള്ളേരിൽ നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് അവർക്കുള്ളത് അവർക്കൊരു ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധശക്തി കുറവാണ് കാരണം പുറത്തിറങ്ങി സമൂഹമായിട്ടല്ലെങ്കില് പ്രകൃതിയുമായിട്ടവർക്കൊരു ഇഴുകിച്ചേർന്നുള്ള ജീവിതം തീരെ കുറവാണ് അവരെപ്പോഴും റൂമിനകത്ത് തന്നെയാണ് ക്ലാസില് പോവുന്നു അല്ലെങ്കിൽ കോളേജില് പോവുന്നു വരുന്നു വീട്ടിൽ കയറുന്നു റൂമിലിരിക്കുന്നു അവര് പുറത്തുള്ള ബാക്കി പ്രകൃതിയിലെ കലാ അല്ലേ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുമായിട്ടൊന്നും അവർക്ക് പൊരുത്തപ്പെടാന് പറ്റത്തില്ല പെട്ടെന്നവർക്ക് അസുഖങ്ങളൊക്കെ വരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു പ്രശ്നമാണ് പിന്നെ മാതാപിതാക്കളാണെങ്കിലും നോക്കുന്നത് പുറത്തിറങ്ങി കളിക്കാന് പോയാല് പിള്ളേരുടെ ദേഹത്ത് ചെളി പറ്റും പിള്ളേർക്ക് വേറെ അസുഖങ്ങളുണ്ടാവുമെന്നാണ് അവരുടെ തെറ്റിദ്ധാരണ പക്ഷേ അത് വെറും തെറ്റായ ധാരണയാണ് നമ്മള് പുറത്തിറങ്ങി നമ്മൾ മണ്ണിലും ചെളിയിലൊക്കെ കളിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചൂടൊക്കെ രോഗപ്രതിരോധശേഷിയൊക്കെ കിട്ടുന്നത് അല്ലാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോള് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും എന്തെങ്കിലും ചെറിയ പനി പോലും വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിപ്പിടിക്കുന്നൊരവസ്ഥയാണ് നമുക്കുണ്ടാവുന്നെ അപ്പോള് ഒരു പരിധിവരെ ഇതൊക്കെ ആവശ്യമാണ് ഇൻറ്റർനെറ്റ് കളികള് എങ്കിലും പുറത്തിറങ്ങി കായികമായിട്ട് നമ്മള് കളികളിലൊക്കെ ഏർപ്പെടണം ഏർപ്പെട്ടില്ലെങ്കില് അതിൻറ്റേതായ ബുദ്ധിമുട്ടുകള് നല്ല രീതിയില് തന്നെ നമുക്കുണ്ടാകും